ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭാഷയാണ് മലയാളം മലയാളികൾ മലയാളികൾ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് അവർക്കിടയിലുള്ള ആശയവിനിമയത്തിനുള്ള ഭാഷ മലയാളമാണ് മലയാളത്തെ മാതൃഭാഷ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മലയാളത്തിലെ മലയാളത്തിലെ പല വാക്കുകളും തമിഴിൽ നിന്നും തമിഴ് നിന്നിൽ തമിഴ് നാട്ടിൽ നിന്നൊക്കെയാണ് പണ്ടത്തെ നമ്മുടെ തമിഴ് ഇതിൽ നിന്നാണ് ലഭിക്കുന്നത്